നമുക്കിപ്പോൾ ഫോട്ടോഗ്രാഫിന്ന് പറഞ്ഞിട്ടുണ്ടങ്കിൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ദേശിയമായിട്ടാണെങ്കിലും അന്താരാഷ്ട്രീയ പരമായിട്ടാണെങ്കിലും ഒരു പാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൽ ചില സ്ഥാപനങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പറയാം പിന്നെ തിരുവനന്തപുരത്തുണ്ടൊരു അതായത് ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ മലപ്പുറത്ത് സ്ഥിതിചെയ്യുന്നുണ്ട് പിന്നെ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി പിന്നതുപോലെ തന്നെ മീഡിൽ മീസ്റ്റ് സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് തന്നെ ഉണ്ട് പിന്നെ പിന്നെ ക്രീയേറ്റീവ് ഹട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി പിന്നെ മൊട്ടക്കര കേരള കേരളത്തിൽ തന്നെയാണ് അതൊക്കെ സ്ഥിതിചെയ്യുന്നത് പിന്നെ പീജേ ഫോട്ടോഗ്രാഫി പേയാട് കേരള പിന്നത് പോലെ യോ മോഡിയ ഷോ യു മീഡിയ ഷൂട്ട് സ്കൂൾ കൊച്ചിൻ കേരള അത് പിന്നെ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അത് ഗവൺമെൻറ് അപ്പ്രൂവിൽ ആണ് അത് ഗവൺമെൻറ് അപ്പ്രൂവ്ഡ് ചെയ്ത ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിന്നെ അതുപോലെ തലശ്ശേരി ഒരു ടീം ഹാക്കേ ക്യാം ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിട്യൂട്ട് കേരളത്തിൽ തന്നെയുണ്ട് അപ്പോൾ ദേശിയ തലത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്